ആ പറയൂ ആ ചായക്കടയാണ് ചായക്കടി ഇവിടെ സമൂസ ഉണ്ട് നെയ്യപ്പം ഉള്ളി വട പിന്നേ പഴം പൊരി മറ്റേ മടക്ക് നുറുക്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ട് ഏ നാല് ആൾക്കുള്ള നാല് ചായ അല്ലെ നാല് ചായ എന്താപ്പിന്നെ വിരുന്നുകാരൊക്കൊ ഉണ്ടോ ആ ആയിക്കോട്ടെ എപ്പോഴൊക്കെ സമയം എപ്പോഴാണ് പറഞ്ഞത് സമയം എപ്പോൾ പത്ത് മണിക്ക് ആ ചായയും കടി എന്താണ് വേണ്ടത് നെയ്യപ്പം പത്ത് രൂപ പത്ത് രൂപയാണ് ഒരു കടിക്ക് പത്ത് രൂപ നാലാൾക്ക് നെയ്യപ്പം മാത്രം മതിയോ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെറുമൊരു കടി മതിയോ അ നെയ്യപ്പവും പിന്നെ നല്ല ചൂടുള്ള പഴം പൊരിയുണ്ട് പഴംപൊരി ഉണ്ട് പിന്നെ സമൂസ ഉണ്ട് കട്ട്ലേയ്റ്റ് ഏ ചായക്കടികളൊക്കെ പത്രുപ്പ്യെ ഉള്ളു പത്ത് പത്തു രൂപയ്ക്കാണ് ചായയ്ക്ക് പത്ത് കടിക്ക് പത്ത് ചായക്ക് പത്ത് തന്നെ ചായയ്ക്കും കടിക്കും പത്ത് ചായയ്ക്ക് പത്ത് കടിക്ക് പത്ത് അങ്ങനെ തന്നെ ആ വീട്ടിലേക്ക് എത്തിച്ചേരുമോ അതോ വീട്ടിൽ നിന്നാരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്താണ് ചെയ്യേണ്ടത് വീട്ടിലേക്കെത്തിയ്ക്കാൻ അ വീട്ടിലേക്ക് എത്തിച്ച് തരാം വീട് എവ്ടേന്നാറഞ്ഞത് പുൽപ്പറ്റ അങ്ങാടിയിലല്ലെ അ ആയിക്കോട്ടെ